ആ ഹലോ ആരാണ് സംസാരിക്കുന്നത് ആ ഹ ഹ ആ എന്നാ ഇച്ചായ ആ ആ അത് ശരി ആ അതെ അത് കുഴപ്പമില്ല നമ്മളിന്നാൾ ചെയ്തതാണല്ലോ അത് നമുക്ക് ചെയ്യാം കാര്യം ആ പൈപ്പിനെ നമ്മളന്ന് വാങ്ങിയ പൈപ്പത്ര നല്ല പൈപ്പ് ആയിരുന്നൂന്ന് തോന്നുന്നില്ല അപ്പം നമുക്കത് മാറിയാൽ അത് നമുക്ക് സാധിക്കും അതിപ്പം അത്യാവശ്യവാന്നോ അത് നമുക്കിപ്പം ഒരു ഫുൾ പൈപ്പ് മേടിച്ചോ അതായിരിക്കും നമുക്ക് നല്ലത് ഈ അല്ലെങ്കിൽ പകുതിയായിട്ട് വാങ്ങിയാലും പുതിയതായിട്ട് വാങ്ങിയാലും റേറ്റിൽ വലിയ മാറ്റം വരുന്നില്ല അപ്പം നമുക്ക് അത് ശരി അപ്പം ഇന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ദിവസം താമസിച്ചാൽ കുഴപ്പമില്ലല്ലോ ആ ശരി ആ ആ ആ ചെയ്യാം നമുക്കത് ചെയ്യാം ഞാൻ ഇപ്പോൾ ഒരു സ്ഥലത്ത് വർക്കിലിരിക്കയാണ് ആ ഞാനൊരു ചെയ്യണം നമുക്ക് പൈപ്പ് വാങ്ങണ്ടേ അപ്പോൾ ആരെങ്കിലും ഒന്ന് വിട്ടാൽ പൈപ്പ് വാങ്ങി വച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു നമുക്ക് ആ അല്ല ഒന്നര ഒന്നര ഒന്നര ഇഞ്ചിൻ്റെ ഒരു ഫുൾ പൈപ്പ് വാങ്ങിയാൽ മതി ആ അത് വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം ആ ബാക്കി അതിൻ്റെ ക്യാപുകളും മറ്റുള്ളതും എൻ്റെ കയ്യിലുണ്ട് പേടിക്കണ്ട ആ ആ പൈപ്പ് മാത്രം വാങ്ങിയാൽ നമുക്കത് ചെയ്യാം ആ ഇന്ന് ഇന്നന്നെ ചെയ്തതരാം ഇന്നന്നെ ചെയ്തതരാം താമസിക്കാതെ ഓ താമസിക്കാതെ ചെയ്യാം

ആ ചെയ്യാം ചെയ്യാം ഓക്കെ ഓക്കെ ഓക്കെ